ഇപ്പോൾ ഒരു വർഷ കാലയളവില് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാകുന്ന വിളകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലായിട്ടും നമുക്ക് കാപ്പി കാര്യങ്ങളെക്കെയാണ് കാപ്പി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒര് വട്ടം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് വളർന്ന് വലുതായി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കോരോ വാർഷവും ഓരോ വർഷവും നമുക്കത് വിളവെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മള് അതിന് പിന്നെ പ്ര പ്രത്യേകിച്ച് അത് വെട്ടിക്കളഞ്ഞ് പുതിയത് വെച്ച് അങ്ങനെ ഒരു ഇത് അതിന് ഇല്ല കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒര് വട്ടം നട്ട് കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് ഇടയ്ക്കിടയ് ഉണ്ടായി കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒട്ടും ഉണ്ടാകാത്ത സമയത്ത് മാത്രം നമ്മളത് വെട്ടി കളഞ്ഞിട്ട് അടുത്തൊരു തൈ വെക്കേണ്ട ഒരാവശ്യകത വരുന്നുള്ളൂ പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് റബ്ബറ് റബ്ബറും ഇതേപോലെ തന്നെയാണ് നമ്മളൊരു വട്ടം വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ പാല് തീരുന്ന വരെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതും വർഷം വർഷം നമുക്ക് ഇങ്ങനെ വിളവെടുത്ത് കൊണ്ടിരിക്കാനുള്ള ഒരു ഇതുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ വാഴ വാഴ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വട്ടം വെച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ വെട്ടിക്കളയണ്ട ഒരവസ്ഥയാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നിന്ന് പിന്നെ നമുക്ക് വിളവ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയില് നോക്കണം പിന്നെ അതിന് നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ

നെല്ലിന് നെല്ല് വെച്ചിട്ട് കാര്യമുള്ളൂ ക ഇല്ലെങ്കില് നമ്മള് പിന്നെ അതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പെടണ്ടി വരും കാരണം വെള്ളവില്ലാത്ത കുറെ ടൈമ്മ്കള് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അപ്പോൾ വെള്ളം ഉള്ള ടൈമില് വേണം നമ്മളത് കൂടുതലായിട്ടും പരിപാലിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥകളില് ഇപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ഉണ്ടാവുക